ഹലോ എനിക്ക് മലപ്പുറത്ത് പോവാൻ ആയിരുന്നു ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിരുന്നു ഡ്രൈവർ രാവിലെ ഒൻപത് മണിക്ക് കാക്കുയയിൽ വരാൻ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും നേരമായിട്ടും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചത് അവിടെ എനിക്ക് ഒരു മണിക്ക് എത്തണം കാരണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത് വില്ലേജിന് ആളുകൾ വരുമ്പോൾ ഞാൻ അവിടെ എത്തിയിരിക്കണം ഡ്രൈവർ വേഗം വരുമോ ഇനിയും ലേറ്റ് ആവുമോ എന്ന് അറിയാൻ ആണ് വിളിച്ചത് കാരണം ഇവിടെ നിന്ന് നാല് മണിക്കൂർ യാത്ര വേണ്ടി വരും അവിടയെത്താൻ